ഓക്കെ കോളേജ് കോളേജ് പ്രിസിപ്പിൾ അല്ലെ ആ ഞങ്ങൾ ബി ടെക്കിൻ്റെ അഡ്മിഷന് വേണ്ടി വന്നതാണെ ഞാനിപ്പോൾ അതെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എൻജിനിയറിൻ്റെ ബി ടെക്ക് അഡ്മിഷന് വേണ്ടി വന്നതാണ് അപ്പോൾ എന്തൊക്കെയാ പ്രൊസീജിയേഴ്സ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഫീസ് എല്ലാം കാര്യം അറിയാൻ വേണ്ടീട്ടാണ് വന്നത് എൻ്റെ സ്ഥലം ഷൊർണൂരാണ് ആ ഇവിടെന്ന് മുക്കാൽ മണിക്കൂറുള്ളു അതെ അതെ ഞങ്ങൾ ഡെ ഡെയിലി പോയിട്ട് വരുക ചെയ്യണത് ആ അതെ അതെ ഇൻസ്റ്റിട്യൂഷൻസിൻ്റെ ബി ടെക്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ എൻജിനിയറിങ് എനിക്ക് ഇപ്പം അവിടെ എങ്ങനെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടീ ഇപ്പോൾ ഞാൻ കീം എഴുതി പാസ്സായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എപ്പോൾ വരണം എന്തൊക്കെ ഡോക്യൂമെന്റസ് സബ്മിറ്റ് ചെയ്യണം അതൊക്കെ അറിയാൻ വേണ്ടീട്ടാണ് ഇപ്പം ഞാൻ വന്നത്

ഓക്കെ

ആ ഓക്കെ ഓക്കെ ആ ഇൻകം സെർട്ടിഫിക്കറ്റൊക്കെ ആവശ്യമുണ്ടൊ

ആ ഓക്കെ ഇപ്പോൾ അവിടെ ആ ഓക്കെ ഓക്കെ അപ്പം അഡ്മിഷൻസൊക്കെ തുടങ്ങിയോ അവിടെ ടി സിലെ ആ ഓക്കെ ഇപ്പോൾ ഞാനും കിംസിനും അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് ഫീസ് അങ്ങനെ എന്തൊക്കെയാണ്

ഇപ്പേത്രേയായിരിക്കും വരും ഫീസ് പറയാനുണ്ടാവുക ആ എസ് ടോട്ടാലല്ലേ ഓക്കെ അപ്പോൾ ഒരു ഇയർ എയ്റ്റി ടു ആ റെയ്ഞ്ച് വരുമല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെകൂടെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ പ്രൊമോട്ട് ചെയ്യാറുള്ളതാണൊ ആ ഓക്കെ സാർ ഓക്കെ ഓക്കെ മാം ഓക്കെ പിന്നെ നമ്മൾടെ ഞങ്ങളിപ്പോൾ പഠിച്ച സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ എൻ എസ്സ് എസ് എൻ സി സി ഒക്കേണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാമ്പസിൽ അതുണ്ടൊ അത് എൻ എസ്സ് എസ് എൻ സി ആ ഓക്കെ ഓക്കെ മാം അത് അതെ അതെ ആ ഓക്കെ മാം ആ പിന്നെ ഞങ്ങളിപ്പന്തായാലും അഡ്മിഷൻ എടുക്കണ്ടെ ടൈംമാകുമ്പൊഴേക്കും വരാല്ലേ ഇനി മാം മെസ്സേജ് അയച്ചിട് ആ ക്യാഷ് ഞങ്ങൾ വന്നിട്ട് നേരെ കയ്യിത്തരാം ആ ഓക്കെ അപ്പം എക്സ് എംപ്ലോയീസ്സാണെങ്കിൽ ഇങ്ങനെ പൈസ ആണോ അടയ്ക്കേണ്ടത് ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ മാം എന്തായാലും ഇനി ഇപ്പോൾ അഡ്മിഷൻ എടുക്കാറാകുമ്പോൾ എല്ലാം കൊണ്ട് വരാം ഓക്കെ മാമിനെ എന്തായാലും ഒന്നൂടി കാണാം ഓക്കെ മാം താങ്ക് യൂ കേട്ടൊ